ആ ഹലോ

ആ ആ ആ ഓക്കേ ആ ഓക്കേ ഓ ഓ ഓ ആഹ് തിരുമുറി ഏതു ഭാഗത്തായിട്ടാണ് നമ്മുടെ വയറിങ് ആ മുറിപ്പാടുകളാണോ ആ ഓക്കേ ഓക്കേ ഓക്കേ രോമം കൊഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കൊഴിയുന്നതിനേക്കാൾ കൂടുതലാണോ കൊഴിയുന്നത്

ആഹ് അതെ ഓക്കേ ഓക്കേ ഇതിപ്പോൾ എത്ര ദിവസം ആയി തുടങ്ങിയിട്ട് ആ ആ ആ ആ

ഒമിറ്റ് ചെയ്യുന്നുണ്ടല്ലെ എന്താ ആ ആ ആ ആ

ആ ആ ആ ആ ആ ഓക്കേ ഓക്കേ എന്തായാലും നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം ക്ലിനിക്കിലോട്ട് അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡ് ചെക്കപ്പ് നടത്തണം പിന്നെ എന്താണ് ഫുഡ് കഴിച്ചത് എന്നുള്ള ചിലപ്പോൾ ഫുഡിൻ്റെ ഇൻഫെക്ഷൻ ആവാം അതായത് ഫുഡ് ഇപ്പോൾ വോമിറ്റിങ് ഉണ്ടെന്നാണല്ലേ പറഞ്ഞത് ആഹ് അപ്പോൾ എന്താ കഴിച്ചത് എന്നുള്ളത് അറിയണം എന്തായിരുന്നു കൊടുത്തിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയയും ആഹ് ആ ആ ആ ആ ഓക്കേ ഓക്കേ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചെക്കപ്പ് നടത്തേണ്ടി വരും കാരണം രോമവും കാര്യങ്ങളും ഒക്കെ കൊഴിയുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ലിനിക്കിലോട്ട് കൊണ്ടുവന്നിട്ടത് ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം എന്നിട്ട് അതിനുശേഷം നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം ആ നിങ്ങൾ എന്നാൽ നേരത്തെ പോന്നോളൂ ആ ഇന്നുണ്ടാവും ആ ആ ശരി ആ ശരി ഓക്കെ